ഒരു ചിത്രത്തിലൂടെ ഒരു ഫോട്ടോഗ്രാഫിലൂടെ ഇന്ത്യയെ കാണിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചാൽ ഞാൻ ആ ഫോട്ടോയുടെ കണ്ണുകൾ ഇന്ത്യയിലെ തെരുവുകളിലേക്ക് നീട്ടി വെക്കും അവിടെയാണ് യഥാർഥ ജീവിതങ്ങൾ ഉള്ളത് മുംബൈയിലെയും കൊൽക്കത്തയിലെയും ഇന്ത്യയിലെ അങ്ങനെ മെട്രോ പോളിറ്റിക് സിറ്റികൾക്കിടയിലൂടെ ആരും കാണാതെ വെച്ച ചേരികളിലേക്കായിരിക്കണം ഓരോ ഫോട്ടോഗ്രാഫറിൻ്റെയും കണ്ണുകൾ നീങ്ങേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിതം എത്രത്തോളം വേദനാജനകമാണെന്ന് ഒരു ചിത്രത്തിലൂടെ നമുക്കെല്ലാവർക്കും കാണിക്കാൻ കഴിയുന്നത് ഒരു കഴുകൻ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം പകർത്തിയെടുത്ത പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ആ കുട്ടിയെ സഹായിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പിന്നീട് ഒരു നാൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം അത്തരത്തിലായിരിക്കരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ പക്ഷേ അദ്ദേഹം മരിക്കുക ആത്മഹത്യ ചെയ്തുവെങ്കിലും ആഫ്രിക്കയിലെ ഉൾനാടുകളിലുള്ള സോമാലിയ പോലുള്ള സ്ഥലങ്ങളിലെ ജി കുഞ്ഞ് ജീവനുകൾ എത്രത്തോളം വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്ന് പോകുന്നതെന്ന് ഒരു ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ ആ ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോഗ്രാഫിക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവാണ് അത് കാലത്തെ ഫ്രീസ് ചെയ്യും നിങ്ങളിന്നെൻ്റെ ഒരു ചിത്രം പകർത്തിയാൽ അതൊരു പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾ നോക്കിയാൽ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായിരിക്കും ആ ചിത്രത്തിന് കാലത്തിനെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്നൊരു കഴിവ് ഫോട്ടോഗ്രാഫിക്കുണ്ട് ഫോട്ടോഗ്രാഫി എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലാണെന്ന് കേട്ടിട്ടുണ്ട് വെളിച്ചത്തിലെ ചിത്രം എന്നാ അതിനർത്ഥമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കാലം അപ്പോൾ ഇന്ത്യയിലെ ഓരോ തെരുവുകളിലും ഓരോ ചേരികളിലും ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും അവരുടെ പച്ചയായ ജീവിതം ഒപ്പിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്ലാം ഡോഗ് മില്ലിയനിയർ എന്ന സിനിമയിൽ മുംബയിലെ ചേരികളിലെ ജീവിതങ്ങളുടെ ദയനീയാവസ്ഥയെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് എ ആർ റഹ്മാൻ എന്ന സംവീ സംഗീത സംവിധായകനോ റസ്സൂൽ പൂക്കുട്ടി എന്ന മലയാളിക്കും അതിലൂടെ ഓസ്കർ എന്ന അപൂർവ്വ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ യഥാർഥ ജീവിതം അവിടെയാണ് തങ്ങി നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിനെ ഫോട്ടോകളിലൂടെ ഇന്ത്യയെ കാണിക്കാനൊരു അവസരം ലഭിച്ചാൽ ഞാൻ ഈ നാട്ടിലെ ചേരികളിലേക്ക് ഇന്നാട്ടിലെ ഏറ്റവും താഴെ തട്ടിലിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ആ ഫോട്ടോയുടെ കണ്ണുകളെ ചലിപ്പിക്കൻ പറയും